ഗാനം പഴയ ഗാനങ്ങളാണ് എനിക്ക് ഇഷ്ടം പഴയ ഗാനങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കൂടുതലും പാടി കേട്ട് അതിൻ്റെ കൂടെ പാടി പാടി നടക്കും എനിക്ക് അതൊരു വലിയ ഇതാണ് ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പാട്ടുകൾ തന്നെയാണ് കൂടുതലും കേൾക്കുന്നത് എനിക്ക് പാടാനും ഇഷ്ടമാണ് പക്ഷെ അതിൽ കൂടുതൽ കൂടുതൽ പാടി പാടി നടന്ന് അത് എങ്ങനെയെങ്കിലും അതിനെ ആ പാട്ട് രീതിയിലാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എൻ്റെ സൗണ്ട് അത്ര നല്ലതല്ല എങ്കിലും ഗാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ചിലപ്പോൾ പാടി എങ്ങനെയെങ്കിലും ഫലിപ്പിച്ച് എടുക്കാറുണ്ട് ചിലർ പറയും കാളരാഗം നല്ല രാഗം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ പാടാറുണ്ട് എനിക്ക് ഗാനങ്ങൾ കേട്ട് നടക്കാനാണ് കൂടുതലും ഇഷ്ടം ഒരുപാട് ഗാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് പഴയ ഗാനത്തോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പഴയ ഗാനങ്ങൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യവും